നീ വന്നോ ഞാൻ പോയി ഞാൻ പോവുക നീ വന്നോ നീ ഞാൻ അവിടെ എവിടെ ഇന്ന് നാളെ മറ്റന്നാൾ നാലാം നാൾ മൂന്നാം നാൾ ഇന്നും എന്നും അവൾ ഇവൻ എപ്പോൾ ഞാൻ അറിഞ്ഞു അറിഞ്ഞില്ല കണ്ടു കണ്ടില്ല കേട്ടു കേട്ടില്ല ആഹാ അങ്ങനെയോ എങ്ങനെ ഇങ്ങനെ ഓഹോ അങ്ങനെകുറച്ച് കുറച്ച് മംഗലം വീട് കല്ല്യാണം